ഹലോ കാർവാഷ ോപ്പറേറ്റ്ണല്ല ഇത് ആ സാറെേ എൻ്റെ വണ്ടിയ ഒന്ന് കയ്്യതൻാ പിന്നെ പിപിഎഫൻ ജിയൻ എല്ലാ സഥലേ സഴേ എല്ലാ പറയ സറേ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 ഹൈറൈഡ് ഹൈറൈഡ വ ത തടെ ഹൈറൈഡ് ഇല്ലേ ആ എനിിക്കോ ഫുൾബോളിയാ വണ്ടതത് ഫുൾബോി ആ ഫുൾബോഡി വേണം ഫുൾബോഡി ഇൻ്യർ ഉൾപ്പെടെ ആ എന്ത്റെ വെരിക്കും പോളിിക്കും വേണണം അത്ഈ പിപഎഫർോഡ ഇല്ല സാറേ

ആണോ ആ പിപിഎഫ ഒരു മിഡിൽേഏജ ലെട്ടാ പറഞ്ഞേ എത്രേ് സാറേ

ആണോ ആ ആ പിപിഫ അത് അത് ആ ആ പതിനേൻ്റെ പ പതിനേഴൻ്റെ ഇട്ട വേണോ പതിനേിന് മതി അത്ുൾൊി കവറേജല്ല അച് അഞ്ച് അറർത്തി അഞ്ച് വർഷം ഗ്യാരണ്ടറ്റില്ലേ

ആ ഓക്കെ ഓക്കെ ഓക്കെ അപ്പം ഇതിപ്പം ഇതിപ്പം വണ്ടി വന്ന എടുക്കവാണതോ ആണോ ഇപ്പ സ ആ അപ്പം വീ വീട്ടൊന്ന് എടുക്കുവാണെി അപ്പം അയിന് എക്സ്ട്രാ ചാർജസ് ഉണ്ടോ ആ

ആ ഇപ്പ ഇതിപ്പോ അപ്പോയിൻമെൻറ് എന്നത്തേക്ക ആയിരിക്കും അപ്പോ വണ്ടിട അങ്ങനെയാണെങ്കി എന്നത്തേക്ക ഒള്ളേ അടുത്ത തൊറ്റടുത്തായിട്ട് ആ നാളെ എന്നാ നാളെ വന്ന് ആ നാളെ വന്ന് എടുത്തോാതി അപ്പം ഞാൻ വീടി്റെ ഞാൻ വാട്ട്സ്ആപ്പ ചെയ്യാ ഡെലിവറി എടുത്തോ അതായിരിക്കും അല്ല എനിക്ക് ഇതൊണ്ട് പറ്റത്തില്ല അന്ന് എടുക്കാൻ പറ്റത്തില്ലൺ കൊണ്ടന്ന് തരാൻ പറ്റത്തില്ല ഡെറക്റ്റായിരുന്നു ആ ഓക്കെ സർ ആ ഓക്കെ എന്നാ ശെരി സാർ